എന്റെ നാട്ടിൽ വയറിളക്കം ഭേദമാകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് ചൂടുള്ള തേയില വെള്ളത്തിൽ ചെറു നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിച്ച് കുടിച്ചാൽ മതി അതിലേക്ക് കുറച്ച് തേനും കൂടി ചാലിച്ച് ചൂടോടെ തന്നെ അത് കുടിച്ചാൽ വയറിളക്കം ഭേദമാകും എന്നാണ് അവിടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കഴിവതും വയറിളക്കം അത് ഇളകിത്തന്നെ തീർക്കൊന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം വയറിളക്കം വന്ന് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടായിരിക്കില്ല അപ്പം കഴിവതും ബാത്റൂമിത്തന്നെ അത് പോകുന്നത് വരേം പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പറ്റുന്നത്രേം കളയുക പുറത്തോട്ട് അത് കഴിഞ്ഞാൽ ശാന്തമായിരിക്കുന്നു സമയത്ത് പിന്നെ ചൂട് വെള്ളം ഒക്കെ കുടിച്ച് കുറച്ച് നേരം കിടക്കുക ഇതാണ് എന്റെ നാട്ടിൽ കൂടുതലായിട്ട് കേട്ട് കേൾവി വന്നിട്ടുള്ള ഒരു നാട്ടു വൈദ്യം എന്ന് പറയുന്നത് ചൂടുള്ള തേയില വെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചൂടോടെ തന്നെ അത് കുടിക്കുക അപ്പോൾ വയറിളക്കം ഭേദമാകും എന്നാണ് എൻറ്റെ നാട്ടിൽ ഉള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഞാനും